കിഴക്കൻ മലയോര മേഖലയായ ഞങ്ങളുടെ മേഖലകളിൽ വനത്തിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളും ധാരാളമായിട്ട് ഇവിടങ്ങളിൽ ഉണ്ട് അത് ഇപ്പം ആനയാകട്ടെ കടുവയാകട്ടെ പുലിയാകട്ടെ ചെന്നായ്കൾ ആയിക്കോട്ടെ മ്ലാവുകളാകട്ടെ കേഴമാനുകളാകട്ടെ കൂരൻ ആകട്ടെ മരപ്പട്ടിയാകട്ടെ അങ്ങനെ അനവധി നിരവധിയായ സംഗതികളാണ് ഇവിടെയുള്ളത് ഇവിടെ വനത്തിൻ്റെ അകത്ത് കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി സോഷ്യൽ ഫോറെസ്റ്റിൻ്റെയും വനം വകുപ്പിൻ്റെയുമെല്ലാം നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് കൊണ്ട് ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിച്ചു എന്ന് രേഖകളുണ്ടാക്കി പ്രവർത്തിക്കുന്ന നിരവധിയായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ള ഒരു നാടാണിത് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വേനൽക്കാലമായാലും മഴക്കാലമായാലും വനത്തിൻ്റെ അകത്ത് സ്ഥിരമായി അധിവസിച്ചുകൊണ്ടിരിക്കുന്ന അധിവസിച്ചുകൊണ്ടിരുന്ന കാട്ടാനയും കാട്ടുപോത്തുമടക്കമുള്ള കാട്ടുമൃഗങ്ങൾ ജനവാസമേഖലയിലേക്ക് ഇറങ്ങി എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് വനത്തിനകത്തെ ഈറ്റയും മുളയും പനയും എല്ലാം നിർലോഭം ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആനകൾ വനത്തിനകത്തെ നീർച്ചോലകളിലും ജലം ലഭ്യമാകുന്ന കുളങ്ങളിൽ നിന്നും ജലം ആവശ്യത്തിന് കഴിച്ചുകൊണ്ടിരുന്ന കാട്ടുമൃഗങ്ങൾ അവർ അധിവസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വനപാലകർ കോൺക്രീറ്റ് റോഡുകൾ പണിത് റോഡ് വെട്ടി കോൺക്രീറ്റ് റോഡ്കൾ പണിത് അവരുടെ ജലം ലഭ്യമാകുന്ന കുളങ്ങൾക്ക് സമീപം വലിയ വലിയ രമ്യ ഹർമ്യങ്ങൾ പണിത് അവിടെ ക്ലോക്ക് ട്ടവർ എന്നും വാച് ട്ടവർ എന്നും എന്നുള്ള ഓമന പേരുകളിൽ മനുഷ്യരുടെ സാന്നിധ്യമുണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടുമൃഗങ്ങളായ കാട്ടാനയും കാട്ടുപോത്തുമടക്കമുള്ളവ വനത്തിനകത്ത് നിൽക്കാതെ അവിടെനിന്നും നാട്ടിലേക്കിറങ്ങി ജനവാസമേഹലകളിൽ ഇറങ്ങി ജനങ്ങളുടെ കർഷകരുടെ കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർസംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാ കിംഗ് കോബ്രാ എന്ന രാജവെമ്പാല പണ്ടെല്ലാം പേര് മാത്രമേ നമ്മൾ കേട്ടിരുന്നുള്ളൂ വനത്തിൻ്റെ ഉൾവശങ്ങളിൽ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന രാജവെമ്പാലകൾ ഇന്ന് സുഖമായി താമസിക്കുവാൻ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്കിറങ്ങി വരികയാ തിരുവനന്തപുരം സ്വദേശിയായ വാവാ സുരേഷ് എന്ന് പറയുന്ന ആൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അയാളുടെ ജീവിതത്തിൽ പിടിച്ചിട്ടുള്ളത് ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ തെന്മല വാലിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നാണ് രാജവെമ്പാലയെ ഏറ്റവും കൂടുതലായി പിടിച്ചിട്ടുള്ളത് കാരണം വനത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഈ കൊടുംവിഷമുള്ള ഈ പാമ്പുകൾ വനത്തിനകത്ത് നിൽക്കാൻ മേലാത്ത സാഹചര്യമുണ്ടാവുന്നു എന്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുന്നു എങ്ങനെ കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുന്നു അന്തരീക്ഷത്തിൽ ചൂടിൻ്റെ അളവ് കൂടുന്നു എങ്ങനെയാണ് ചൂടിൻ്റെ അളവ് കൂടുന്നത് കൊടും വനത്തിൽ റോഡുകൾ വെട്ടുകയും മനുഷ്യ നിർമിതമായ യന്ത്രങ്ങൾ സ്ഥിരമായി ഈ റോഡിലൂടെ പോവുകയും കോൺക്രീറ്റ് റോഡുകൾ പണിയുകയും ട്ടാർ റോഡ് പണിതിട്ടില്ല ഇങ്ങനെ പണികയും ഇതിൻ്റെയെല്ലാം ശബ്ദം കേൾക്കുകയും അന്തരീക്ഷ ഊഷ്മാവ് കൂടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ വനത്തിനകത്ത് നിൽക്കേണ്ടുന്ന ഇഴജന്തുക്കളടക്കം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു കടമാൻ കാട്ടുപോത്ത് എന്ന് ഇവിടങ്ങളിൽ അറിയപ്പെടുന്ന കടമാൻ ഇന്ന് മിക്ക കൃഷിക്കാരെൻ്റെയും പറമ്പുകളിലെ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയായി മാറിക്കഴിഞ്ഞു ഇതിനെല്ലാം വനത്തിനകത്ത് തിന്നാൻ തീറ്റിയില്ല കാരണം എണ്ണം പെരുകിക്കഴിഞ്ഞു കള്ളിങ് നടക്കുന്നില്ല നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ ദേശീയ മൃഗമായ കങ്കാരൂവിനെ അതായത് ഓസ്ട്രേലിയയിലൊക്കെ ദേശീയ മൃഗമായ കങ്കാരൂ പോലും നിശ്ചിത അളവിലധികം ആയിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ സർക്കാരുകൾ മുന്നിട്ടിറങ്ങും നമ്മുടെ ഇവിടെ കാട്ടാനയായാലും കാട്ടുപോത്തായാലും എന്ത് ജീവികളായാലും ശരി എത്രയെണ്ണം പെരുകിയാലും കൃഷിക്കാരന് എത്ര ദോഷമുണ്ടാക്കിയാലും അതിനെ നിയന്ത്രിക്കാനോ അതിൻ്റെ എണ്ണം പെരുകുന്നതിനെ കണ്ട്രോള് ചെയ്യാനോ അതിന് ശരിയായ തരത്തിൽ ഭക്ഷണം ലഭ്യമാക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കാനോ സർക്കാരുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തയാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം